എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തികച്ച ദൈവവിശ്വാസിയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോളെൻ്റെ ഒരു ദിവസം പോലും തുടങ്ങുന്നത് ദൈവത്തിലാശ്രയിച്ചും അർപ്പിച്ചും തന്നെയാണ് ഒരു ജീവിതം തുടങ്ങുമ്പോഴും നമ്മൾ മംഗളകരമായ ഒരു ഏറ്റവും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മംഗളകരമായ കാര്യം ചിലപ്പം ഒരു വിവാഹജീവിതമായിരിക്കും അതിനുവേണ്ടി നമ്മൾ എന്നു മുതലേ ഒരുങ്ങുന്നോ ആ ഓരോ ഒരുക്കത്തിലും നമ്മൾ ദൈവത്തിൽ അർപ്പിച്ചു കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നതു തന്നെ നമ്മളുടെ എൻ്റെ ജീവിതത്തിലെ എനിക്കേറ്റവും ഇംപോർട്ടൻറ്റായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം നമ്മളതുവരെ നമ്മളുടെ മാതാപിതാക്കളുടെ സംരക്ഷണയിലാണ് അതിനുശേഷം നമ്മൾ ഒരു വ്യക്തിയായി മാറി കഴിയുമ്പോഴത്തേക്കും എൻ്റെ വിവാഹ ജീവിതമാണെനിക്കേറ്റവും മംഗളമായിട്ട് മംഗളകരമായി നടന്നത് അതു വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെയായിരുന്നു തുടക്കം പ്രാർത്ഥനയോടു കൂടിയും എല്ലാ ഒരു നല്ല നമ്മളുടെ ഗുരുക്ക നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ വന്ദിച്ചുകൊണ്ടും മറ്റു കൂട്ടുകാരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടും അങ്ങനെ ഒരു ഒത്തൊരുമയുടേതായിട്ടുള്ള ഒരു ഇതായിരുന്നു അതു വളരെ നമ്മൾ വളരെ നന്നായിട്ട് ഒരുങ്ങിയായിരിക്കും ഒരു മംഗള കർമ്മം നടത്താനായിട്ട് തുടങ്ങുന്നത് ഇപ്പം എൻ്റെ ജീവിതത്തിലും അതു നല്ലെയൊരു രീതിയിൽ തന്നെ ഒരുങ്ങി തന്നെയായിരുന്നു വിവാഹ ജീവിതത്തിലേക്കു വന്നത് അൻ ഒരു ഇപ്പോഴത്തെ കാലത്തിൽ പണ്ടു കാലങ്ങളിൽ സ് ആണും പെണ്ണും തമ്മിൽ പോലും കണ്ടു ക്കോ സംസാരിക്കുമോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല ജനറേഷൻ പൊ വന്നതോടുകൂടി അവർ തമ്മിൽ സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും പിന്നെ പ്രീമരൈറ്റല് കോഴ്സെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ട് അതൊത്തിരി പ്രയോജനപ്രദവുമാണ് കാരണം പല ജീവിതത്തിലും പല പ്രശ്നളുണ്ടാകുന്നത് തരണം ചെയ്യാനായിട്ട് ഇതു സഹായിക്കുന്നുണ്ട് അപ്പം നമ്മളൊരു മംഗളകരമായ കർമ്മം നടന്ന് അതു മുന്നോട്ടു അത് മംഗളകരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളതിനു വേണ്ടി നന്നായിട്ട് നാൾ കുറച്ചു സമയമെടുത്ത് ഒരുങ്ങി കൊണ്ടു തന്നെ വേണം അതിലേക്കു പുറപ്പെടുവാനായിട്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിലെ മംഗളകരമായ കർമ്മം വിവാഹ ജീവിതം തന്നെയായിരുന്നു അതിനുശേഷം മക്കളുണ്ടായിരുന്നതിൽ എല്ലാം ദൈവത്തിലർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തോടു കൂടി തന്നെയാണ് ഞാനെൻ്റെ ജീവി കാര്യങ്ങളെല്ലാം തുടങ്ങിയത് ഇന്നുവരെ ദൈവം അതെല്ലാം മംഗളകരമായിട്ടു തന്നെ നടത്തിക്കൊണ്ടു പോകുന്നു അപ്പം ദൈവത്തിലാശ്രയിച്ചാൽ ഒന്നിനും ഒരു മുട്ടുണ്ടാകുകയില്ലെന്നുള്ളത് വാസ്തവം തന്നെയാണ് അപ്പം മംഗളകരമായി ഒരു സംഭവത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾക്ക് അതിൽ പലരുടെയും ഒത്തുചേരലുകളുണ്ട് ഒരു വിവാഹമെന്നു പറയുന്നതു പോലും ഏറ്റവും മംഗളകരമായ കർമ്മമാണ് അതിലേക്കു നമ്മൾ സഹോ സു കൂട്ടുകാരെയും ബന്ധുക്കളെയും നമ്മളുടെ പരിചയക്കാരെയും എല്ലാം ക്ഷണിച്ചു വരുത്തി അവർക്കൊരു സ്നേഹ വിരുന്ന് നൽകി അങ്ങനെയൊക്കെയാണ് നമ്മളൊരു മംഗള കർമ്മം നടത്തുന്നതു തന്നെ അത് ഒരു ഒത്തൊരുമയുടെ സൂചനയായിട്ടാണ് അതു കാണിക്കുന്നത് കാര്യം ഒരു വ്യക്തി ഒറ്റയ്ക്ക് തുടങ്ങുന്നതല്ല ഒരു ജീവിതവും അല്ലെങ്കിൽ ഒരു മംഗള കർമ്മം ഒരു മംഗള കർമ്മം നടത്തണമെങ്കിൽ നമ്മളതിൽ ഒത്തിരി പേർ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും അതിൽ നമ്മുടെ ബന്ധുക്കൾ കാണും കൂട്ടുകാർ കാണും സഹോദരങ്ങൾ കാണും അയൽക്കാർ കാണും അങ്ങനെ നമ്മളത് നടത്തുമ്പോൾ വളരെ മംഗളകരമായിട്ടു തന്നെ അത് അവസാനിക്കുകയും ചെയ്യും ഒത്തൊരുമയുടെ ഒരു കു സംഭവമാണ് ഒരു മംഗള കർമ്മം എന്നു പറയുന്നത്